ഞാൻ ഇന്നലെ ഫ്ലിപ് ഫ്ലിപ്കാർട്ടിൽ ഒരു സാംസങ് എസ് ട്വൻഡിത്രീ അൾട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടയിരുന്നു വളരെ മികച്ച ഫീലിംഗ് നൽ ഫീലിങ്ങെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ഫോണാണ് ഫോൺ ആണ് എന്ന് വച്ച സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ബെസ്ററ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം വേർത്ത് ഓഫ് മണി അത്രയേ പറയാനുള്ളു ഞാൻ വാങ്ങിയത് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ഇൻ്റെർണൽ ഉള്ള ഫോണാണ് ഏറ്റവും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യം എന്താണ് വച്ചാൽ അതിൻ്റെ കാമറ ഹൺഡ്രഡ് എക്സ് സൂമിങ് ഉഫ് ഒരു രക്ഷയും ഇല്ല കിടിലം ആ ഹൺഡ്രഡ് എക്സ് സൂമിങ്ങിൽ തന്നെ അത്രയും ക്ലിയർ ആയിട്ട് വിശ്വൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കിടിലം ഫോണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് വച്ച് നോക്കുകയാണെങ്കിൽ എന്നാ പറയുക ഗെയിമിങ്ങിനൊക്കെ അത്രയും എന്താ പറയുവാ ഐ ഫോൺ നോട് അത്രയും ചേർന്നു നിൽക്കുന്ന അത്രയും പെർഫോമൻസ് കിട്ടുന്ന കിടിലം സിബ്സെറ് ആണ് അതിൽ കൊടുത്തിട്ടുണ്ടത് കൊടുത്തിട്ടുള്ളത് അത്രയും അടിപൊളി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പിന്നെ സാംസങിൻ്റെ പറഞ്ഞ് അറിയിക്കേണ്ടല്ലൊ അത്രയും കിടിലം ഫോണാണ്